ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആ ഞാൻ എൻ്റെ വീടിന് പെയിൻ്റടിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനൊരാളുടെ നമ്പറായിരുന്നു ഇത് ആ അപ്പമൊരു രണ്ട് നില വീടാണ് രണ്ട് നില വീടും ഉണ്ട് പിന്നെ മതിൽന് പെയിൻ്റടിക്കാനും ഉണ്ട് അപ്പോൾ എനിക്ക് കരാറായിട്ട് ചെയ്യാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് മോളിൽ മൂന്ന് റൂമ് ഹോള് സിറ്റ് ഔട്ട് അങ്ങനെ ചെയ്യാനുണ്ട് അതുപോലെ താഴെം രണ്ട് റൂമ് ഹോള് സിറ്റ് ഔട്ട് കിച്ചാണൊക്കെ ചെയ്യാനുണ്ട് പിന്നെ മതിൽനും പെയിൻറ്റ് ചെയ്യാനുണ്ട് ഇതും എനിക്കാണെങ്കിൽ എത്രേം പെട്ടന്ന് ചെയ്ത് കിട്ടുവോ ആ ആതെ അതങ്ങനെയല്ല എങ്കിലും ഇങ്ങനെ ആ ആത് ആൾ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ പെട്ടന്ന് ചെയ്യാൻ കയിയുമോ ഇത് എങ്ങനെ നിങ്ങൾ പെയിൻ്റിൻ്റെ ഏത് കമ്പനിയാണ് എടുക്കാറുള്ളത് സാധാരണ ഏഷ്യൻ പെയിൻ്റോക്കെ ട്ട് എടുക്കാറുണ്ടോ എനിക്ക് അത്യാവശ്യം നല്ല ക്വളിറ്റിയുള്ള പെയിൻ്റെന്നെ വേണം

അതെ ആ ഞങ്ങൾ പറഞ്ഞു തരും ഏതാ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം അത് റേറ്റൊക്കെ ഇങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നേന്നറിയണം ഓക്കെ ഇങ്ങളാദ്യം വീട് വന്നിട്ടൊന്ന് കാണണം എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് വരാൻ പറ്റുമോ ഓക്കെ എങ്കിൽ ഞാൻ വീട്ടിലുള്ള സമയത്ത് വന്ന് ആ ഓക്കെ ഇങ്ങൾക്ക് എന്നാണ് വരാൻ പറ്റുവാന്ന് വെച്ചാൽ എന്നാൽ തിരിച്ച് വിളിച്ചാൽ മതീട്ടോ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം